ജോലിസ്ഥലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ റിസോർട്ടിലാണ് പണിയെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മള് പോയപാട് നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല ഇങ്ങനെ ഗസ്റ്റ് വന്നു പോകുമ്പോൾ റൂമുകളൊക്കെ ചെയ്യണം വൃത്തിയാക്കണം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യണം അന്നേരം എല്ലാവരും കൂടി പിന്നേ അവിടുത്തെ മുതലാളിയെ അവര് വന്ന് നമ്മളെ പലതരത്തിലും ചീത്ത പറയുകയൊക്കെ നമുക്ക് അത്ര നന്നായിട്ടൊന്നും അറിയില്ലായിരുന്നു പണിയൊന്നും ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു പോയിക്കോണ്ടിരുന്നത് തൊട്ടടുത്തുള്ളവൾ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര വിഷമ വിഷമിച്ചിരുന്നു ഞങ്ങൾക്ക് അതിനെ പറ്റി ജോലീനെപ്പറ്റി അത്ര ഇതില്ലായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളെല്ലാം പഠിച്ചു ഞങ്ങൾക്ക് ആദ്യമാദ്യം ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എന്താണെന്നുവെച്ചാല് അവര് ചെയ്യുന്നതിനെല്ലാം നമ്മളെ തെറ്റ് കണ്ടുപിടിച്ചു നമ്മളെ പറയും പിന്നെ അല്ലാതെ തന്നെ അവര് വല്ലാതെ വഴക്കൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ പിടിച്ചുനിന്ന് പത്ത് പതിനൊന്ന് കൊല്ലം നിന്ന് ഇപ്പോൾ ആ റിസോർട്ട് അടച്ചും പോയി ഇപ്പോൾ പണിയൊന്നുമില്ല കാര്യമായിട്ട് നമ്മൾ തൊഴിലുറപ്പ് കൂലിപ്പണിക്കൊക്കെയായിട്ട് പോവുകയാണ് അങ്ങനെ ഈയൊരു തെറ്റാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് വേറെ ഇതൊന്നുമല്ല